ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി ആരോഗ്യ മേഖലയിലൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കീ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം കോവിൻ കോവിഡ് വന്ന സമയത്ത് കോവിൻ എന്ന ആപ്പുപയോഗിച്ചാണ് നമ്മള് വാക്സിനേഷൻസെല്ലാം ബുക്കെയ്തിരുന്നത് അത് ശാസ്ത്രവും നല്ല രീതിയിലത് ടെക്നോളജിയും ശാസ്ത്രവും രണ്ടും ഒരേ പോലെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായത് അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് നമ്മള് കോവിൻ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മള് കോവിൻ ആപ്പും വെബ്സൈറ്റും ഒക്കെ ഉപയോഗിച്ച് നമ്മള് കോ വാക്സിനേഷൻ ബുക്കെയ്തിരുന്നു വാക്സിനേഷൻസ് വാ കോവിഡിൻ്റെ വാക്സിനേഷൻ കണ്ട് പിടിച്ചത് തന്നെ ശാസ്ത്രമേഖലയിലെ ഒരു വലിയൊര് മാറ്റായിരുന്നു ശാസ്ത്രമേഖല ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കയാണ് ശാസ്ത്രത്തിനോടൊപ്പം ശാസ്ത്രം റിസർച്ച് മുതലായ സാധനങ്ങള് ചെയ്യുന്ന ഇതൊക്കെ സാങ്കേതിക തരത്തിലും കൂടി വളരേയൊര് മാറ്റമുണ്ടായത് കൊണ്ട് വളരെ സുഖപ്രദമായ രീതിയിൽ നമുക്ക് റിസേർച്ചും റിസേർച്ചുകള് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് അതായത് നമുക്കിപ്പൊരു ഒരു നമ്മളിപ്പൊരു ഒരു ഇപ്പോൾ ഒരു സെല്ലെടുത്ത് നമ്മള് നമക്കതിനെ നോക്കണം അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ടെക്നോളജികളിതാണ് ഇൻ ഹാൻഡ്സ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നമുക്കൊരു സെല്ലിനെ കുറിച്ചറിയണമെങ്കിൽ നമുക്ക് റിസർച്ചെയ്യണമെങ്കിൽ പണ്ടൊക്കെയാണെങ്കില് നമ്മള് കഫേയില് പോകണം ഇൻറ്റെർനെറ്റ് യൂസെയ്ത് ഭയങ്കര കാര്യമായിട്ട് നമ്മള് തപ്പണം ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിലിണ്ട് ഫോൺ ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയിലൊരു വലിയൊരു മാറ്റാണ് അത് അങ്ങനൊരു മാറ്റമുണ്ടായത് കൊണ്ട് നമക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് റിസേർച്ച് പേപ്പേഴ്സ് ഉണ്ടാക്കാം നമ്മുടെ ലാപ്ടോപ്സ് നമ്മുടെ ഫോണ് നമ്മുടെ സാധനങ്ങള് സിസ്റ്റം യൂസെയ്ത് നമുക്ക് നല്ലൊരു റിസേർച്ച് പേപ്പറ് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്കുണ്ടാക്കി എടുക്കാം ഇതെല്ലാം ശാസ്ത്രസാങ്കേതികമേഖലകളലെ വലിയ മാറ്റങ്ങളുടെ ഓരോരോ നാഴികക്കല്ലുകളാണ് അപ്രകാരം തന്നെ നമ്മള് ഉണ്ടാക്കിയെടുത്ത വെബ്സൈറ്റാണ് ആപ്പാണ് കോവിൻ കോവിഡ് കാലത്ത് നമ്മൾക്ക് കോ വാക്സിനേഷൻ ബുക്കെയ്യണ്ട കാര്യങ്ങളൊക്കെ വളരേ സുഖപ്രദമായ രീതിക്ക് ചെയ്യാൻ കോവിൻ ആപ്പ് ഒരുപാട് സഹായിച്ചിരുന്നു അതായത് നമുക്ക് പുറത്ത് പോവാൻ പറ്റില്ല നാല് പേരോട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കോവിഡ് വ്യാപകമായി പടർന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു ശാസ്ത്രസാങ്കേതികമേഖലയിലെ മാറ്റമുണ്ടായത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം വളരേ എളുപ്പമായത് ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ് അങ്ങനെ ശാസ്ത്രസാങ്കേതികമേഖലയിൽ വളർച്ച ഉണ്ടായത് കൊണ്ടാണ് കോവിഡ് കാലത്തും വിദ്യാഭ്യാസമേഖലയിലും വിദ്യാഭ്യാസം നടത്താനായത് പഠിക്കാനും മറ്റ് ജോലികള് വർക്ക് ഫ്രം ഹോം എന്ന പദ്ധതികള് വന്നു ഇതെല്ലാം നമ്മുടെ ശാസ്ത്രസാങ്കേതികമേല മേഖലകളില് പുരോഗതികള് കൊണ്ടാണ് ഈ പുരോഗതി കൊണ്ടുതന്നെ ആരോഗ്യമേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ മനോഹരമായി നടക്കുന്നത് എം ആർ ഐ എൻഡോസ്കോപ്പി മുതലായ കാര്യങ്ങളെല്ലാം നമ്മള് ടെക്നിക്കലീ കൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ രോഗങ്ങള് കണ്ട പിടിക്കാൻ പറ്റുന്നു റിസേർച്ചുകള് ചെയ്യാൻ പറ്റുന്നു രോഗങ്ങളുടെ എങ്ങനെയാണ് രോഗങ്ങള് വന്നേന്ന് കണ്ട് പിടിക്കാൻ പറ്റുന്നു വാക്സിനേഷൻസ് കണ്ട് പിടിക്കുന്നു ഇതെല്ലാം വളരേ മാറ്റങ്ങളുണ്ടാകാൻ കാര്യം ഈ ശാസ്ത്രസാങ്കേതികമേഖലകളിലെ പുരോഗതികളാണ്